പാചകത്തിനു മുമ്പ് എല്ലാം ഒരു സാമ്പാർ വയ്ക്കാനാണെങ്കിൽ എല്ലാ കഷണങ്ങളും എടുത്തു വയ്ക്കും എല്ലാം വൃത്തിയാക്കി കഴുകി വയ്ക്കും പിന്നെ പൊടികളെല്ലാം ചൂടാക്കി വയ്ക്കും പുളി പിഴിഞ്ഞു വയ്ക്കും എല്ലാം വച്ചതിനു ശേഷമാണ് അടുപ്പത്തേക്ക് ഇടുക പിന്നെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്ത് തീർക്കും ഇപ്പം അടുപ്പിൽ തീയുണ്ടെങ്കിൽ വിറകടുപ്പിൽ തീയുണ്ടെങ്കിൽ എന്തായാലും വിറകടുപ്പിൽത്തന്നെയേ വയ്ക്കുള്ളു അല്ലെങ്കിൽ പെട്ടന്ന് തീർക്കാൻ വേണ്ടി ഗ്യാസിലേക്ക് വയ്ക്കും സ്റ്റവിലേക്ക് വച്ച് പണിയെല്ലാം വേഗം തീർക്കും ഇപ്പം ഇത് തുടങ്ങുന്നതിനു മുന്നെ അവിടെയെല്ലാം വൃത്തിയാക്കുന്നു എല്ലാം തുടച്ച് അടുക്കളയൊക്കെ ഒന്ന് അടിച്ചുവാരി അതിനുശേഷം പാചകത്തിലേക്ക് കടക്കുന്നു ഇപ്പോൾ ഒരു ചിക്കൻ കറിയാണെങ്കിൽ ചിക്കൻ കഷണങ്ങളാക്കി മസാലയൊക്കെ പുരട്ടി അടുപ്പത്ത് വച്ചിട്ട് ബാക്കി ഉള്ളി തക്കാളി മുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചതൊക്കെ എല്ലാം വാട്ടിയിട്ട് അടുപ്പത്തേക്ക് വച്ച ചിക്കനിലേക്ക് ഈ മസാലക്കൂട്ട് ആഡ് ചെയ്ത് വെന്തതിനുശേഷം നന്നായിട്ട് തിളച്ച് വെന്തതിനുശേഷം അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഇറക്കി വയ്ക്കുന്നു